യെസ് കം ഇൻ എൽ കെ ജിക്ക് ഓ ഓക്കെ മകൻ്റെ പേരെന്താ രാഹുൽ ആ ഓ ആ ഓക്കെ എവിടെ നിന്നാണ് വരുന്നത്

ആ ഓക്കെ ഓക്കെ ഇതിവിടെ നിന്ന് ദൂരം ഉണ്ടാകുമോ ആ ഓക്കെ ഇതിനു മുന്നിങ്ങനെ അങ്ങനെ സ്കൂളിലൊക്കെ പ്രീ സ്കൂളിലങ്ങനെ എന്തെങ്കിലും വിട്ടിട്ടുണ്ടോ അംഗൻവാടിയോ പ്രീ സ്കൂളോ അങ്ങനെയെന്തെങ്കിലും ആ ഓക്കെ ഓക്കെ അപ്പം നിങ്ങൾ ട്രാവല്ലിംഗ് എങ്ങനെയാണ് സ്കൂൾ ബസ്സാണോ അതോ ഓട്ടോ എന്താണ്

ആ ഓക്കെ സ്കൂൾ ബസ്സ് ഇവിടെ നിന്നുണ്ട് സ്കൂൾ ബസ്സ് ഇവിടെ നിന്നുണ്ട് എല്ലാ റൂട്ടിലും ഉണ്ട് രാവിലെ ഒരു എയ്റ്റ് തേർട്ടീൻ ഒക്കെ ആവുമ്പോൾ നിങ്ങളുടെ അവിടെ നിന്ന് എവിടെ നിങ്ങൾക്ക് എന്നു വച്ചാൽ ആ സ്റ്റോപ്പ് പറഞ്ഞാൽമതി അവിടെ നിന്നിട്ട് അവിടെ വന്ന് സ്കൂൾ ബസ്സ് വരും ആ ഓക്കെ ആ ഇവിടെ ചേരുമ്പോൾ ഒരു എക്സ്ട്രാ ഒരു ഫൈവ് ഹൺഡ്രഡ് മാത്രമേ അഡ്മിഷൻ ഫീയായിട്ട് മേടിക്കുന്നുള്ളൂ ആ അങ്ങനെ ഇതിപ്പോൾ എൽ കെ ജിക്ക് അക്കാഡമിക്ക് ഇയറിന് ഒരു വൺ തൗസൻറ് ഫൈവ് ഹൺഡ്രഡ് ഇയറിന് പിന്നെ അഡ്മിഷൻ ഫീയുംകൂടി കൂട്ടി നമ്മൾ എക്സ്ട്രാ ഫൈവ് ഹൺഡ്രഡും കൂടിക്കൂട്ടി ഒരു ടു തൗസൻറ് ആ ആ ആ എക്സ്ട്രാ ആക്ടിവിറ്റീസ് ഒക്കെയുണ്ട് ഇപ്പം ഞങ്ങൾ ഇപ്പോൾ എൽ കെ ജി യു കെ ജി ആയ കാരണം നമ്മൾ അങ്ങനെ പ്ലേയ് ഗ്രൗണ്ടിലൊക്കെ വിട്ട് കളിക്കുക അങ്ങനെയൊക്കെയേ ഉള്ളൂ പിന്നെ നമ്മൾ കുറച്ചുകൂടി കഴിഞ്ഞാൽ നമ്മളിവിടെ എക്സ്ട്രാ ആക്ടിവിറ്റീസ് ആയിട്ട് സ്വിമ്മിങ്ങ് കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പക്ഷെ അത് എൽ കെ ജി യു കെ ജിക്കില്ല അത് ആ സെക്കൻറ് സ്റ്റാൻഡേർഡ് തൊട്ടിട്ട് നമ്മൾ സെക്കൻറ് ഫസ്റ്റ് സെക്കൻഡ് സ്റ്റാൻഡേർഡ് അതായത് ഫസ്റ്റ് സ്റ്റാൻഡേർഡിലൊക്കെ നമ്മൾ ജസ്റ്റ് ഒന്ന് വല്ലാണ്ട് സ്വിമ്മിങ്ങ് പഠിപ്പിക്കൽ നമ്മൾ ഒപ്പം നിന്നിട്ട് പിന്നെ സെക്കൻറ് സ്റ്റാൻഡേർഡിലാകുമ്പോൾ ആണ് നമ്മൾ പഠിപ്പിക്കാൻ ഒക്കെ തുടങ്ങുക ഇതിപ്പോൾ എൽ കെ ജി ആയ കാരണം നമ്മളങ്ങനെയാണ് പ്രൊവൈഡ് ചെയ്യില്ല കാരണം അത് നമുക്ക് റിസ്ക് എടുക്കണം ഇവിടിപ്പോൾ നിങ്ങൾ ആ അതെയതെ ഇവിടെ ഇവിടെ നമ്മൾ സ്കൂളിൽ തന്നെ യൂത്ത് ഫെസ്റ്റിവലും കാര്യങ്ങളൊക്കെ കണ്ടക്ട് ചെയ്യും പിന്നെ അതുപോലെത്തന്നെ പ്രോഗ്രാംസ് നമുക്കിപ്പോൾ ഓണം പ്രോഗ്രാംസ് ക്രിസ്മസ് പെരുന്നാൾ അങ്ങനെയൊക്കെ വരമ്പം നമ്മൾ എക്സ്ട്രാ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യും അതുപോലെത്തന്നെ അവർക്ക് കോമ്പറ്റീഷൻസ് അതുപോലെത്തന്നെ സാറ്റർഡേ നമ്മൾ കമ്മ്യൂണിക്കേഷൻ ക്ലാസ്സുണ്ട് അതായത് നമുക്ക് അതായത് നമുക്ക് ഈ ജീ കെ പോലുള്ള ജനറൽ നോളെജ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യാൻ സ്കൂളിൽ നിന്നുതന്നെ പക്ഷെ അത് ഓൺലൈൻ ആയിട്ടാണ് കണ്ടക്ട് ചെയ്യുക അത് നമ്മളെ കമ്മ്യൂണിക്കേഷൻ അത് ആ ഉണ്ട് ഉണ്ട് പ്ലസ്ടു വരെയുണ്ട് ആ ആ നമ്മൾ ആ ആ ഓക്കെ നമ്മളിപ്പോൾ തൊട്ട് ക്ലാസ്സ് ടൈമ് ഇപ്പോൾ നമ്മൾ ഇവിടെ നയൻ തേർട്ടി തൊട്ടിട്ടാണ് ഇത് എൽ കെ ജി ആയ കാരണം നയൻ തേർട്ടീൻ തൊട്ടിട്ട് ത്രീ തേർട്ടി വരെയാണ് പിന്നെ സ്നാക്സ് ആ അതെ സ്നാക്സ് ഒക്കെ കൊടുത്തുവിടണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആ ഓക്കെ പിന്നെ ഇല്ല നിങ്ങൾക്ക് എന്തുവേണമെങ്കിലും ഇഷ്ടമുള്ളത് എന്തുവേണമെങ്കിലും കൊടുത്തയക്കാം ഒരു കുഴപ്പവും ഇല്ല അവർ കഴിക്കണം പക്ഷെ അതവർ കഴിക്കണതാവണം

ആ യൂണിഫോമൊക്കെ നമുക്ക് സെയിം തന്നെയാണ് എല്ലാവർക്കും കാരണം സ്കൂൾ മൊത്തം സെയിം യൂണിഫോമിട്ടു തന്നെയാണ് ആ ഓക്കെ ഓക്കെ അപ്പോൾ ഓക്കെ അപ്പോൾ നമ്മളോരു ഫോം പ്രൊവൈഡ് ചെയ്യും അതു മേടിച്ചിട്ട് ഇപ്പോൾ പൊയ്ക്കോളൂ ഓക്കെ ഓക്കെ താങ്ക് യൂ ആ